എൻ്റെ കൈയിൽ ഒരു സ്മാർട്ട് ഫോണൊന്നുമില്ല ഒരു സാധാ ഫോൺ മാത്രമാണ് ഞാൻ വാർത്തകൾ ടിവിയിലെ വാർത്തകളെ കാണാറുള്ളു അത് ഏഷ്യാനെറ്റ് കാണും മനോരമ ന്യൂസ് കാണും ട്വൻ്റി ഫോർ കാണും എല്ലാ ന്യൂസുകളും കാണും മറ്റുള്ള മാധ്യമങ്ങൾ പത്രം വായിക്കും മനോരമ പത്രം വർഷങ്ങളായിട്ട് മനോരമ പത്രമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നുള്ള സാമാന്യ അറിവുകളൊക്കെ കിട്ടുന്നുണ്ട് വാർത്തകളെല്ലാം ഉണ്ട് അല്ല ഇൻസ്റ്റഗ്രാമും മറ്റേ ഈ ഫേസ്ബുക്കൊന്നും നമ്മൾക്ക് ഇല്ല പിന്നെ മക്കൾക്ക് കാണും ഞാൻ അത് നോക്കാറുമില്ല ഉപയോഗിക്കാറുമില്ല എനിക്ക് അതിനെപ്പറ്റി ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തുമില്ല ഒരു ഫോൺ വന്നാൽ പോലും എനിക്ക് ടച്ച് ഫോണിൽ അതെടുക്കാനും അറിയത്തില്ല ഞാൻ എടുക്കത്തുമില്ല എൻ്റെ ഫോണിൽ വല്ലവരും വിളിച്ചാൽ എടുക്കും അത്രയൊക്കേ ഉള്ളു എൻ്റെ ഇത് വേറെ വിശ്വാസ്യത എല്ലാ പത്രം വിശ്വാസത്തിൽ പോകുന്നു വാർത്തകൾ നല്ല വാർത്തകൾ മനോരമ മാതൃഭൂമി അങ്ങനെയൊക്കെയുള്ള വൻകിട പത്രങ്ങൾക്കുണ്ട് എല്ലാ പത്രവും നല്ല പത്രങ്ങളാണ് വിശ്വാസമല്ലാത്തത് ഒന്നും പത്രക്കാർ എഴുതുകയില്ലല്ലോ എഴുതിയാൽ പിറ്റേ ദിവസം ക്ഷമാപണം എന്ന് പറഞ്ഞു ഒരു കോളം അവർ എഴുതും ഇന്നലത്തെ വാർത്ത തെറ്റായിപ്പോയി പത്രാധിപരെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ പിന്നെ ടിവി വാർത്തകൾ കാണും ട്വൻ്റി ഫോറ് മനോരമ ന്യൂസ് ഏഷ്യാനെറ്റ് എല്ലാ ന്യൂസുകളും കാണും അപ്പം അങ്ങനെയാണ് ലോകത്തെപ്പറ്റിയുള്ള അറിവും ജ്ഞാനവും ഒക്കെ കിട്ടുന്നത് മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരൊക്കെ പറയും അവിടെ അങ്ങനെ സംഭവിച്ചു ഇവിടെ ഇങ്ങനെ സംഭവിച്ചു ഈ ഇടെ തന്നെ അവിടെ കർണാടകേ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് വീണു ഒരു ലോറി താഴെ പോയി ഞങ്ങളുടെ വീട്ടിലെ ടി വി കേടായത് കാരണം അതിനെ പറ്റി ഒന്നും അറിയാൻ പറ്റിയില്ല പിള്ളേരുടെ കയ്യിലാണ് മറ്റേ സ്മാർട്ട് ഫോണൊക്കെ ഉള്ളത് അപ്പം അതിനെ പറ്റിയൊന്നും ഇതുവരെ പത്രത്തിൽ വായിക്കുന്നതല്ലാതെ ടി വിയിൽ കൂടെ അതിനെപ്പറ്റി കുറിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ എന്നും പത്രം വായിക്കും ആ പത്രത്തിൽ കൂടെയുള്ള അറിവുകളുണ്ട് ആ അതാണ് മാധ്യമത്തിലെ ഒരു വിശ്വാസ്യത അപ്പം പത്രക്കാർ നുണ എഴുതണ്ടെ ആവശ്യവുമില്ല എല്ലാ ദിവസം പത്രം വരുത്തുന്നുണ്ട് വർഷങ്ങളായിട്ട് പത്രം വായിക്കുന്നുണ്ട് ടിവിയൊക്കെ കുറേ നാളുകളായിട്ട് മറ്റുള്ളത് ഇപ്പോൾ സിനിമായൊന്നും ഞാൻ കാണാറില്ല വാർത്തകൾ പിന്നെ എലെക്ഷൻ കാര്യങ്ങൾ ഇലക്ഷൻ്റെ എവിടെയെങ്കിലും എലെക്ഷൻ നടന്നതൊക്കെ എവിടെ എങ്കിലും അല്ല കേരളത്തിലെ ഇലക്ഷനാണ് നമുക്ക് പ്രാധാന്യം അപ്പം കാണും അത് ഫുൾ ടൈം ഇരുന്ന് അതിൻ്റെ റിസൾട്ട് തീരുന്നത് വരെ ഇരുന്ന് കാണും എത്ര രത്രിയാണെങ്കിലും അതിലാണ് നമ്മുടെ ഒരു ഈ ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തെ എൻ്റെ ഒരു മാധ്യമങ്ങളോടുള്ള ഇഷ്ടം